തിരുവനന്തപുരത്ത് ലുലു മാളുണ്ട് കൊച്ചിയിൽ കൊച്ചി കോഴിക്കോട് ഹൈലൈറ്റ് ഹൈലൈറ്റ് മാളുണ്ട് കോഴിക്കോട് ഞങ്ങള് പോയിട്ടുണ്ട് അപ്പോള് അവടെയൊക്കെയെല്ലായിടവും കയറി എല്ലാതും കണ്ട് കുട്ടികൾക്ക് കളിക്കാനും എല്ലാതും ഉണ്ടവിടെ പിന്നെ മഞ്ചേരി ഇന്ത്യൻ മാൾ അതിലും കയറിയിട്ടുണ്ട് എസ്കലേറ്റർ പേടിയാണ് അതില് കയറാന് എന്നാലും പേടിച്ച് പേടിച്ച് കയറി നല്ല രസമാണ് അവിടെ കാണാന് കുട്ടികൾക്ക് കളിക്കാന് വലിയവർക്കും കുറെ കാണാനുണ്ട് തുണിത്തരങ്ങൾണ്ട് പലേ സൈസും കാണാനും വാങ്ങാനും എല്ലാതുണ്ട് പിന്നെ വണ്ടൂര് ഞങ്ങളടുത്താണ് ടൗണ് സ്ക്വയർ അവിടെയും ഞങ്ങൾ ഒഴിവുള്ള ദിവസങ്ങളൊക്കെ പോകും കുട്ടികളെയും കൊണ്ട് അവിടെയും കുട്ടികൾക്ക് ഊഞ്ഞാല് കസേര കളികള് എല്ലാതും അവിടെയുണ്ട് കുട്ടികളൊക്കെ കളിച്ച് വൈകുന്നേരം പോരും എല്ലേതിലും കയറും കുട്ടികള് ഞങ്ങളും എല്ലാതും കഴിഞ്ഞ് പോരും